പണ്ട് നമ്മള് സാധാരണ ഉപയോഗിച്ചിരുന്നത് പാട്ട് കേൾക്കാനൊക്കെ നമ്മള് സീഡി സീഡി വാങ്ങീട്ടാണ് നമ്മള് ഡിവിഡി പ്ലാ പ്ലെയറില് ഇട്ട് പാട്ട് കേൾക്കുവാണ് ചെയ്യാറ് നമുക്കൊരു പാട്ട് കേൾക്കണമെങ്കി നമ്മളാ പാട്ട് നമുക്കെന്ത് പാട്ടാ വേണ്ട വെച്ചാൽ അത് ആ സീഡിയിലേക്ക് പകര്ത്തുക അല്ലെങ്കില് നമ്മള് ഫോണില് പാട്ട് കേൾക്കണമെങ്കി നമ്മളത് മെമ്മറി കാര്ഡില് നമുക്കിഷ്ടപ്പെട്ട പാട്ടുകള് പകര്ത്തുക അങ്ങനെ പാട്ട് കേട്ടിട്ടാണ് നമുക്ക് ശീലം ഇപ്പോൾ ഒന്ന് പറഞ്ഞ് വെച്ചാൽ ഇപ്പോൾ എല്ലാം ഡിജിറ്റലൈസ്സായതോടെ മ്യുസിക്ക് നമുക്ക് എപ്പം വേണങ്കിലും ക്കേ നമുക്കിഷ്ടപ്പെട്ട പാട്ട് കേക്കാനുള്ള പ്ലാറ്റ്ഫോംസ് നിറയെ ഉണ്ട് ഐ മീന് ആപ്പുകളുണ്ട് സ്പോട്ടിഫൈ അതുപോല് തന്നെ വിങ്കി എയര്ട്ടെൽന്റെ വിങ്കി ആപ്പ് അതുപോലുള്ള പല ആപ്പും നമുക്ക് മ്യുസിക്കിനു വേണ്ടി മാത്രം ആ അവയിലബിളാണ് അത് നമുക്ക് എപ്പം വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാം അതുപോലെ നമ്മുടെ നമ്മള് ചൂസ് ചെയ്ത് നമുക്ക് പാട്ട് കേക്കാം ഏത് ഭാഷ വേണെങ്കിലും സംഗീതം വേണമെങ്കിൽ നമ്മ്ക്ക് കേൾക്കാം നമ്മടെ താല്പര്യങ്ങള്ക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു പാട്ട് എടുത്ത് പറഞ്ഞാൽ ആ പാട്ടിന്റെ ആ രീതിയിൽ തന്നെ ഉള്ള പാട്ടുകള് നമുക്ക് കൂടുതലായിട്ട് അവൈലബിളായിട്ട് ആപ്പുകളില് കിട്ടും നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്കീ ഇങ്ങനെ പാട്ട് കേൾക്കാം പക്ഷെ പണ്ടങ്ങനെയല്ല നമ്മള് മൊത്തത്തില് നമുക്ക് ഒരൂ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാൻ പറ്റില്ല അങ്ങനെ പെട്ടെന്ന് നമ്മള് സീഡിയില് ഇപ്പോൾ ഒരു പാട്ട് കേറ്റി പറഞ്ഞു വെച്ചാൽ പാട്ട് കേറ്റി പറഞ്ഞു വെച്ചാൽ അത് നമ്മള് എവിടേ എന്നെന്ന് തിരഞ്ഞു എന്നിട്ടൊക്കെ വേണം നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആപ്പുകളിലാകുമ്പോൾ നമുക്ക് നമ്മടെ സൗകര്യത്തിനൻസരിച്ച് ഉപയോഗിക്കാം